സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെടുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് കായിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കായികമായിട്ട് വളരാൻ സ്കൂളുകളിൽ പരമാവധി അവസരങ്ങൾ ഒരുക്കിക്കൊടുക്കേണ്ടതാണ് കൊച്ചുകുട്ടികൾ തുടങ്ങി മുതിർന്നവർ വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് പീ റ്റി പീരീഡെന്ന് പറഞ്ഞുകൊണ്ട് കായിക വിനോദത്തിലേർപ്പെടാനുള്ള അവസരങ്ങൾ സ്കൂളുകളിൽ ഒരുക്കാറുണ്ട് അതിന് പുറമേതന്നെ കുട്ടികൾ ഓരോരുത്തരും അവർക്ക് അഭിരുചിക്കനുസരിച്ചുതന്നെ കായികവിനോദത്തിലേർപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉദാഹരണമായിട്ട് ഫുട്ബോൾ കളിക്കാൻ താൽപര്യമുള്ള കുട്ടികളെ കൂടുതൽ അത്തരത്തിലൊരുക്കുവാനും ബാസ്ക്കറ്റ്ബോള് കളിക്കാൻ താൽപര്യമുള്ള കുട്ടികളെ അത്തരത്തിലൊരുക്കുവാനും ഒക്കെ കായികധ്യാപകർ ശ്രദ്ധിക്കണം കായിക അധ്യാപകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഓരോ കുട്ടികളുടേയും അഭിരുചിക്കനുസരിച്ച് കുട്ടികളെയും കായികവിനോദങ്ങൾ മനസ്സിലാക്കിക്കൊടുക്കുക എന്നുള്ളതാണ് ഓട്ടവും ചാട്ടവും ഒക്കെ താല്പര്യമുള്ള കുട്ടികളെ അത്തരത്തിലൊരുക്കിയാൽ തീർച്ചയായിട്ടും ഭാവിയിൽ കുട്ടികൾക്ക് അത് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ആനുദിന ജീവിതത്തിൽ കായിക അഭ്യാസത്തിന് ആരോഗ്യപ്രദ ആരോഗ്യത്തിന് പ്രധാന പങ്കുണ്ട് ഓരോ കായികാഭ്യാസവും നമ്മൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം കൂടുതൽ വർധിക്കുകയാണ് മറ്റ് രോഗങ്ങളിൽനിന്നും വിടുതൽ ലഭിക്കുവാനും മാനസികവും ശാരീരികവുമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാനും ഈ കായികവിനോദങ്ങൾ സഹായിക്കും അഅതുകൊണ്ടുതന്നെ കുട്ടികളെ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് കായികവിനോദങ്ങളിൽ ഏർപ്പെടുത്തുവാൻ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കായികവിനോദങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഓടുന്ന കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുക ചാടുന്ന കുട്ടികൾക്ക് അതിൻ്റെ ടെക്നിക്കുകൾ പറഞ്ഞുകൊടുത്തുകൊണ്ട് അവരെ ചാട്ടത്തിനായിട്ട് ഒരുക്കുക മത്സരങ്ങളിലേക്കവരെ പങ്കെടുപ്പിക്കുക അതൊക്കെ വ്യക്തിഗതമായിട്ട് ചെയ്യാവുന്ന കായിക അഭ്യാസങ്ങളാണ് അതുപോലെത്തന്നെ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓരോ മത്സരങ്ങളും ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ ക്രിക്കറ്റ് ഫുട്ബോൾ തുടങ്ങുന്ന ഗ്രൂപ്പിനങ്ങളിലേക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾക്ക് പറ്റും കുട്ടികളിന്ന് ഭൗതികപരമായിട്ട് മാത്രം വളരാൻ ആഗ്രഹിക്കുകയും മാതാപിതാക്കൾ അതിലേയ്ക്കു മാത്രം കൂടുതൽ ഊന്നൽ കൊടുക്കുകയും ചെയ്യുന്നു കായിക അധ്യാപകൻ്റെ ചുമതലയാണ് മാതാപിതാക്കളെ കായികാഭ്യാസം നടത്തുന്നതിൻ്റെ പ്രയോജനം മനസ്സിലാക്കിക്കൊടുക്കുവാനും കൂട്തൽ കുട്ടികളെ കുട്ടികളിൽ കായിക വിനോദം വിനോദത്തിലേക്ക് കൊണ്ടുവരുവാനും ഉള്ള ചുമതല കായിക അധ്യാപകന്റേതാണ് ഇതിലൂടെ കുട്ടികൾക്ക് കൂടുതൽ വളരുവാനും ഭൗതികപരമായിട്ട് വളരുവാനും സാധിക്കും അധ്യാപകൻ്റെ അഭിരുചിക്കല്ല കുട്ടികൾ വളരേണ്ടത് മറിച്ച് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അധ്യാപകൻ കുട്ടികളെ ബാഡ്മിന്റൺ പഠിപ്പിക്കുവാനും ഷട്ടില് പഠിപ്പിക്കുവാനും ഒക്കെ തയ്യാറാകേണ്ടതാണ് സ്കൂളുകളിൽ കൊടുക്കുന്ന ഒരുമണിക്കൂർ മാത്രമല്ല ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കായികം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സമയമായിട്ട് നൽകേണ്ടത് സ്കൂള് കഴിഞ്ഞും സ്കൂളിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ കുട്ടികൾക്ക് സാധിക്കേണ്ടതാണ് കൂടുതലവസരങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത്തരത്തിൽ കുട്ടികൾക്ക് പ്രവർത്തിക്കുവാനും സാധിക്കുകയുളളൂ വിദ്യാർത്ഥികൾക്ക് കായികപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരങ്ങൾ സ്കൂൾ തലത്തിൽത്തന്നെ പ്രൈമറി ക്ലാസ്സിൽവെച്ച് തന്നെ പരമാവധി നടത്തുവാനും ചെറിയ കുട്ടികളിലൂടെത്തന്നെ അത് വീണ്ടും ഒരിക്കിയെടുക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്